എൻ്റെ മേരിക്കുട്ടീ എനിക്കാണെങ്കിലുണ്ടല്ലോന്നേ ഡ്രൈവിങ്ങ് ലൈസൻസിൻ്റെ ടെസ്റ്റ് ഡേ എടുക്കാനായിട്ട് എൻ്റെ കമ്പ്യൂട്ടര് വർക്ക് എനിക്കറിയത്തുവില്ലാ നെറ്റുവില്ലാ അപ്പോള് അതിന് എന്നെ ഒന്നു സഹായിക്കാവോ എനിക്കാണേ എത്രയും പെട്ടെന്ന് ഇതൊന്ന് ചെയ്യണമെന്ന് വലിയ ആഗ്രഹോണ്ടേ എനിക്കിതൊന്ന് എടുത്തു തരാനായിട്ട് എന്നെ ഒന്ന് സഹായിക്കാവോ അതിൻ്റെ സ്റ്റെപ്പൊക്കെ ഒന്ന് പറഞ്ഞുതരാവോ ഞാന് വീട് വരെ ഒന്ന് വരാം കേട്ടോ എന്താന്നു വച്ചാലേ ഇത് എത്രയും പെട്ടെന്ന് ചെയ്തില്ലെങ്കില് എങ്ങനെ ആന്നെ അത് ഡേറ്റ് കിട്ടിയില്ലെങ്കില് പിന്നെ ഞാന് ഡ്രൈവേയുന്നക്കെ മറന്നും പോവത്തില്ലെ അതുകൊണ്ട് ഒന്ന് സഹായിക്കണേ കേട്ടോ